കോഴി വളർത്തലാണ് ഞാനിപ്പോൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു വീട്ടാവശ്യം എന്നുള്ള രീതിയിലാണ് ഞാനതിനെ കണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല വീട്ടിലെ ആവശ്യങ്ങൾക്ക് കുട്ടികൾക്ക് മുട്ടയുടെ ആവശ്യം വരുമ്പോള് നമുക്ക് അത് മുട്ട വാങ്ങാനായി പുറത്തു നിന്ന് വാങ്ങാനായിട്ട് നല്ല വില കൊടുക്കേണ്ടതാണ് അതായത് നാടൻ കോഴിമുട്ടക്ക് നല്ല വില കൊടുക്കണ്ടതായ ഒരു സാഹചര്യമാണിപ്പോൾ കേരളത്തിലുള്ളത് ആ ഒരു സാഹചര്യം മനസിലാക്കിയിട്ടാണ് കോഴി വളർത്താൻ വീട്ടാവശ്യത്തിന് പത്ത് കോഴിയെ വളർത്താം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് ഞാൻ കടന്നത് താറാവും കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം താറാവുവളർത്തലും നല്ലതാണ് പക്ഷെ അതിനുള്ള സൗകര്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല വെള്ളത്തിലേക്കിറക്കാനും കുറെ സമയം വെള്ളത്തിൽ നീന്തിനടക്കാനുമൊക്കെ ഉള്ള ഒരു സാഹചര്യമുള്ളവർക്ക് താറാവ് വളർത്തലും വളരെ വളരെ നല്ല ഒരു ബിസിനസാണ് പ്രത്യേകിച്ച് താറാമുട്ടയ്ക്ക് നല്ല വില തന്നെയാണ് പന്ത്രണ്ടു രൂപയോളം വില വരുന്ന ഒരു ഐറ്റമാണ് താറാമുട്ട പിന്നെ സാഹചര്യമനുസരിച്ച് കോഴി വളർത്തലിലേക്കാണ് എനിക്ക് താല്പര്യം കൂടുതല് പിന്നെ കോഴി എന്ന് പറയുമ്പോള് നമുക്ക് കോഴിയിറചച്ചിയും കോഴിമുട്ടയും നമ്മുടെ വീട്ടിലേക്കെടുക്കാം പിന്നെ കൂടുതലായിട്ട് കോഴിയെ വളർത്തി വലിയൊരു ഫാമൊക്കെയായിട്ട് തുടങ്ങിയാല്

കൊടുക്കാനായിട്ട് നല്ല ഒരു വില്പന സാധ്യത ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഞങ്ങളുടെ ഈ ഒരു പ്രദേശം കോഴി കോഴി വളർത്തലിൽ കൂടുതൽ ചെയ്യാനായിട്ടാഗ്രഹിക്കുന്നത് താല്പ് സാഹചര്യം വി നമ്മടെ സല പരിസ് പരിമിതി മൂലം സ്ഥല പരിമിതി മൂലമാണ് താല്പര്യം കുറവ് വരുന്നത് കോഴിയെ വളർത്തണമെങ്കിൽ കോഴിക്ക് ആവശ്യമായ തീറ്റ തീറ്റ നമ്മള് ഒത്തിരി വില കൊടുത്താണിപ്പോൾ കോഴിത്തീറ്റ വാങ്ങുന്നത് വീട്ടിലെ അടുക്കള വേസ്റ്റ് കൊടുക്കും അതുകൂടാതെ പുറത്ത് നിന്ന് നമ്മള് കോഴിത്തീറ്റ വാങ്ങി കൊടുക്കുന്നുണ്ട് കോഴിത്തീറ്റ വാങ്ങി കൊടുത്താലേ കോഴികൾക്ക് മുട്ടയ്ക്ക് ആവശ്യമായ എല്ലാ പ്രോട്ടീനും കാര്യങ്ങളുവൊക്കെ കിട്ടുകയുള്ളു കോഴിത്തീറ്റയ്ക്ക് ഏകദേശം നല്ല വിലയാണ് കിലോയ്ക്കൊരു മുപ്പത്തിയഞ്ച് രൂപയോ മുപ്പത്തിയാറ് രൂപ വില വരുന്ന ഒരു സാധനമാണ് കോഴിത്തീറ്റ അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകളാണിപ്പൊൾ കോഴി വളർത്തലിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയില് കോഴിക്ക് പനി ഒത്തിരി കോഴികള് നമ്മുടെ മരുന്ന് കൊടുത്താലും സൂക്ഷിച്ചാലും ശ്രദ്ധിച്ചാലുവൊക്കെ കോഴികള് ചത്ത് പോകുന്ന ഒരു ആ അസ്വസ്ഥത അവർക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് കോഴി വളർത്താനായിട്ടൊരു ഒരു മടിയും കാണിക്കുന്നുണ്ട് കാരണം കോഴിക്കുഞ്ഞുങ്ങളെ നമ്മള് ഫാമിൽ നിന്നൊക്കെ വാങ്ങികൊണ്ട് വന്ന് പ്രത്യേകിച്ചും നാട്ടില് ഇപ്പോൾ പ്രത്യേകത പ്രശ്നം എന്ന് പറയുന്നത് കീരിയുടെ ശല്യം ഭയങ്കരമാണ് കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടാല് കീരി പിടിക്കും പിടിച്ച് അവരുടെ തല കടിച്ചെടുത്തോണ്ട് അങ്ങ് പോകും അങ്ങനെയാണ് ഒത്തിരി കോഴിക്കുഞ്ഞുങ്ങളെ പതിനഞ്ചണ്ണത്തിനെ വളർത്തിയാൽ പത്തെണ്ണത്തിനെ പോലും നമുക്ക് കിട്ടാറില്ല അങ്ങനെയൊരു സാഹചര്യത്ത കൂടി നമുക്ക് ഇപ്പോൾ കുട്ടനാട്ടില് പ്രശ്നമായിട്ടുണ്ട് പിന്നെ കൂട് കെട്ടി കൂട്ടിലിട്ട് വളർത്തിയാല് വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാല് ഈ കോഴികള് തങ്ങളിലങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് വിട്ട് അവർക്കിഷ്ട്ടമുള്ള സാധനങ്ങള് അവർക്കാവശ്യമായ പ്രോട്ടീനുകളോ കാൽസ്യമോ എല്ലാം കൊത്തിത്തിന്നാൻ പറ്റാത്തെ ഒരവസ്ഥ വരുമ്പോൾ കൂട്ടില് തന്നെയിട്ട് വളർത്തിയാല് വരുന്ന കുഴപ്പം അവര് തങ്ങളില് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്ത്പിടിച്ച് ആ പൂടയെല്ലാം കൊത്തിത്തിന്ന് ആകെപ്പാടെ വല്ലാതെ വൃത്തികേടാകുന്ന ഒരു സാഹചര്യമാണ് ഓരോ കോഴിക്കും ഉള്ളത് പിന്നെ കോഴിയെ സമ്മതം കോഴിയുടെ കാഷ്ടം കോഴിക്കാഷ്ടം വളരെ വളമു വളരെ നല്ലയൊരു വളമാണ് പ്രത്യേകിച്ച് പച്ചകറികൾക്കും ചെടികൾക്കും ചെടികൾക്ക് വളരെ വളരെ നല്ല ഒരു വളമാണ് കോഴിക്കാഷ്ടം ഞ ഞാനാ കോഴിക്കാഷ്ഠം ഡ്രൈ ആയിട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട് അത് ചെടികൾക്കൊക്കെ പ്രത്യേകിച്ച് റോസിനൊക്കെ വളരെ വളരെ നല്ലതാണ് ഒത്തിരി നൈട്രജൻ അടങ്ങിയ ഒരു ഇതാണ് ആണ് കോഴിക്കാഷ്ടം എന്നാണ് പറയുന്നത് ചെടികൾക്കാവശ്യമായ നൈട്രജൻ അതിൽ ധാരാളമുണ്ട് പിന്നെ കോഴിക്കാഷ്ടവും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് പിന്നെ മീൻ കുളങ്ങളുടെ മുകളിലായിട്ട് മീൻ വളർത്തുന്ന കുളങ്ങളുടെ മുകളിലായിട്ട് തട്ടടിച്ച് അതില് കോഴിയെ വളർത്തിയാല് ആ കോഴിക്കാഷ്ടം താഴെ വെള്ളത്തിലേക്ക് വീണ് അതിൽ നിന്ന് അതിലെ കുറെ ആ ഇതെല്ലാം മൽ മീനുകളും കഴിക്കാറുണ്ട് അങ്ങനെയും കോഴിയെ വളർത്തുന്നതായിട്ട് ഈ കുട്ടനാട്ടിൽ വളർത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ കോഴികൾ എല്ലാ തരത്തിലും കോഴി വളർത്തല് താറാവ് വളർത്തല് കുട്ടനാട് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായ ഒരു ബിസിനസായി ഒരു ചെറുകിട വ്യവസായമായോ വൻകിട വ്യവസായമായോ ചെയ്യാവുന്ന ഒരു വളരെ നല്ലയൊരു ബിസിനസായിട്ടാണ് കോഴി വളർത്തലിനെ എനിക്ക് മനസിലായിട്ടുള്ളത് അത്യാവശ്യം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കു പൈസക്കായിട്ടായാലും ബുദ്ധിമുട്ടില്ലാതെ കുറച്ചേറെ കൂടുതൽ കോഴികളുണ്ടെങ്കിൽ മുട്ടയും ഇറച്ചിയുമൊക്കെ കൊടുത്ത് നമുക്ക് നല്ലൊരു വരുമാനം വീട്ടമ്മമാർക്ക് സമ്പാദിക്കാം പറ്റുന്ന തരത്തിലുള്ള ഒരു ബിസിനസായിട്ടാണ് കോഴി വളർത്തലിനെ താറാവ് വളർത്തലിനെയോ മാനസിലാക്കിയിട്ടുള്ളത്